മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾ കൂടുതലാണ് മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് അക്ഷരങ്ങൾ കൂടുതലാണ് വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം ഇതൊക്കെ പഠിച്ചെടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഒക്കെയാണ് ഇങ്ങോട്ട് അക്ഷരങ്ങള് മുതൽ കൂട്ടി വായിക്കാനും ചില കട്ടിയുള്ള വാക്കുകൾ വായിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്

എങ്ങനെ പരിഹരിക്കണം എന്ന് പറഞ്ഞ് വെച്ചാൽ വായിക്കുക നല്ലപോലെ പത്രം വായിച്ച് വായിച്ച് വായിക്കുക ഒരുപാട് നോവൽസ് വായിക്കുക ബുക്കുകൾ വായിക്കുക വായിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് അല്ല അത് എന്താണ് മാസങ്ങളും വർഷങ്ങളും വേണം നല്ലപോലെ വായിച്ച് പഠിച്ച് എടുക്കണമെങ്കിൽ അപ്പോഴേ മലയാള ഭാഷ നല്ല പോലെ ഒന്ന് മനസ്സിലാകൂ